വയനാട് ജില്ലയിൽ യുവജനങ്ങൾ നേരിടുന്ന അവസ്ഥ എന്നു പറഞ്ഞാൽ മയക്കുമരുന്ന് കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഇങ്ങനെ ഓരോന്നൊക്കെ സംഭവിക്കുന്നത് മയക്കുമരുന്ന് കൊണ്ടാണ് നമുക്ക് ഈ ഭീഷണിപ്പെടുത്തുന്നത് കാരണങ്ങളൊക്ക എന്നു വച്ചാൽ മയക്ക് മരുന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് തലയ്ക്ക് സ്ഥിരത കിട്ടില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ അക്കാദമിയിൽ ഓരോരോ അക്കാദമി കയറുമ്പോൾ പിന്നെ ഉപയോഗിച്ചു ഉപയോഗിച്ചു നമ്മുടെ ലംഗ്സിന് പ്രശ്നം വരിക പിന്നെ ക്യാൻസറുകൾ വരിക അങ്ങനെ കുറേ കാര്യങ്ങൾ വരും പിന്നെ വലിയ വലിയ ജോബിലേക്ക് ഒന്നും കയറാൻ പറ്റാതെ ആവും ഇങ്ങനെയാണ് നമ്മളെ വയനാട്ടിൽ കുറേ പേര് ഇന്ന് പേര് നേരിടുന്ന വെല്ലുവിളികൾ വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ മയക്കു മരുന്ന് കാര്യങ്ങളും ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ഓരോരുത്തർക്ക് ഇങ്ങനെയെക്കെ വരുന്നത് പിന്നെ വിദ്യാഭ്യാസം തീരെ ഇല്ല അങ്ങനെ വരുമ്പം കുറേ പേര് ഡിപ്രെഷനിൽ ആവും ഈ സാധനം കിട്ടണം ഡിപ്രെഷനിൽ ആവും പിന്നെ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല ജോലി കോൺസെണ്ട്രേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെയൊക്കെ ആവുമ്പം ഒന്നിലും എത്തിപ്പെടാൻ പറ്റാതെയൊക്കെ ആവും